പിന്നെ തയ്യലുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലൊരു തയ്യൽ കടയൊക്കെ ഇട്ട് തയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടിത് കടയിലല്ല വീട്ടിൽ തന്നെയിരുന്നു തയ്ക്കുന്നോണ്ട് ഒരൂ കടയിട്ട് പിന്നെ എല്ലാ വർക്ക്കളും ചെയ്യണമെന്ന് അങ്ങനെയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറെ പേരെയിരുത്തി തയ്ക്കാമേ തയ്ക്കാൻ വേണ്ടീട്ട് തയ്യലറിയാവുന്നവരെ അവിടെ ഇരുത്തി നല്ലൊരു കട പോലൊക്കെയാക്കി ഓരോ സെക്ഷനിൽ ഓരോ സെക്ഷനായിട്ടൊക്കെ ഇങ്ങനെ തയ്ക്കുന്നൊരു ഇത് വെട്ടുന്നൊരു അങ്ങനെ പിന്നെ എംബ്രോഡറി വർക്ക് വേറെ അങ്ങനൊക്കെ ഒരു നല്ല രീതി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനൊരു ലക്ഷ്യമേ ഉള്ളായിരുന്നു നല്ല രീതി തയ്ക്കണമെന്നൊരു കടയിട്ടിട്ട് അത്യാവശ്യം നല്ലത് തിരക്കോടെ നല്ലൊരു ഡി നല്ല ടൗണിലൊക്കെയാണേലൊക്കെ നല്ല രീതിയിൽ തയ്ച്ച് കൊടുക്കത്തില്ല പെട്ടന്ന് തയ്ച്ചു കൊടുക്കാൻ പറ്റുന്നക്ക രീതീൽ ഇപ്പൊരാൾക്ക് ഇന്ന് രാവിലെ കൊടുത്തു എന്നാൽ വൈകിട്ട് കൊണ്ട് കൊടുക്കാം നാളെയെന്തെങ്കിലും പ്രോഗ്രാമിന് പോയങ്ങോട്ട് കുറെ പേരൊക്കെ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും കുറെ പേരുടെ ഒരേപോലെയുള്ള ഡ്രസ്സ്കളൊക്കെ അങ്ങനൊക്കെ വരുമല്ലോ അങ്ങനൊക്കെ വരുമ്പോഴത്തേക്കത് പെട്ടന്ന് രീതി ചെയ്ത് കൊടുക്കാൻ പറ്റത്തക്ക രീതീൽ കണ്ട് ചെയ്ഞ്ച് ചെയ്ത് അങ്ങനെ തയ്ക്കാൻ പറ്റത്തക്ക രീതിയിൽ ഒരു കടയിടണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നടക്കോയില്ലേന്ന് അറിയത്തില്ല പിന്നെ ഇടക്കൊക്കെ നമുക്കിങ്ങനെ ആരോഗ്യ സ്ഥിതിയൊക്കെ ഇതായി കൊണ്ടുള്ള ഇടക്കൊക്കെ ഇങ്ങനെ വരും എന്നാലും വീട്ടിൽ അത്യാവശ്യം തയ്ക്കുന്നൊക്കെയുണ്ട് ഇത്രേം അതേയുള്ളു ആഗ്രഹം ലക്ഷ്യവും അത് തന്നെയാണ്